എൻ്റെ പ്ര പ്രദേശന്ന് വെച്ചാൽ ഇവിടെ ടൗണിലൊക്കെ ലൈബ്രറിയുണ്ട് ലൈബ്രറിയുണ്ട് അതുപോലെ കോളജിൽ പഠിക്കുന്ന സമയത്ത് ലൈബ്രറി ഉണ്ടായിരുന്നു എനിക്ക് ഒരു കഥ കഥപോലുള്ള ഒരു ഒര് കഥാപാത്രങ്ങളുള്ള ഒരു കഥ പോലുള്ളൊരു ബുക്ക് തന്നെ ബുക്ക് വായിക്കുന്നതാണിഷ്ടം കൂടുതലായിട്ടും അതുപോലുള്ള പുസ്തകങ്ങള് വായിക്കുന്നതാണിഷ്ടം അതുപോലെ വീട്ടില്ന്ന് പറയുമ്പോൾ വീട്ടിലൊരുപാട് ടെക്സ്റ്റ് ബുക്സ്ണ്ട് പണ്ട് പഠിച്ച് കഴിഞ്ഞ ടെക്സ്റ്റ് ബൂക്സ് അതുപോലെ പിന്നെ അതിനോട് അനുബന്ധിച്ച് പഠിക്കാൻ വേണ്ടിവാങ്ങുന്ന ഒരുപാട് ജികെ ക്വസ്റ്റ്യൻസൊക്കെയുള്ള പുസ്തകങ്ങളുണ്ട് അതു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെറുത വായിച്ച് അത് കുറച്ച് കുറച്ചൊരു അറിവ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊക്കെ വായിക്കുന്നത് നല്ലതാണല്ലോ അതുകൊണ്ട് തന്നെ എനക്ക് ഞാൻ കൂടുതലായിട്ടൊന്നു പുസ്തകങ്ങൾ വായിക്കാറില്ല എങ്കിൽ പോലും ഇതുപോലുള്ള ജികെ ക്വസ്റ്റ്യൻസ് ഒക്കെ വായി മറ്റുള്ളവരോട് ചോദ്യങ്ങൾ ചോദിക്കാനും അതുപോലെ ആ അതിനൊക്കെ വേണ്ടി അത്തരത്തിലുള്ള പുസ്തകങ്ങള് വായിക്കാറുണ്ട്